ഞാനെൻ്റെ അനിയൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടീട്ട് ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവന് സമ്മാനം കൊടുക്കാൻ വേണ്ടീട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിതുവരെ എത്തീട്ടില്ല അപ്പം ഞാനെന്താണ് ചെയ്യേണ്ടത് അതിനു വേണ്ടീട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ വേണ്ടീട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ് തരാവോ എനിക്കിപ്പം അറിയേണ്ടത് എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ആ ഓർഡറിൻ്റെ ഇപ്പമത് എവിടം വരെ എത്തി എനിക്കുടനെ എത്തുമോ എന്നാണെനിക്കറിയേണ്ടത് കാരണം ന മറ്റന്നാളാണവൻ്റെ ബർത്ത് ഡേ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് നാളെ രാത്രി അവന് കൊടുക്കാൻ വേണ്ടീട്ടാണ് അപ്പം അതിന് വേണ്ടീട്ട് ആ ഒരു ഗിഫ്റ്റ് ഇവിടെ ഉടനെ എത്തുമോ അതിൻ്റെ ഇപ്പം അതെവിടെ എത്തി നിൽക്കുന്നൂന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയേണ്ടത് അപ്പം ഞാനത് എവിടെ പോയി നോക്കി കഴിഞ്ഞാലും എവിടെ തിരഞ്ഞ് കഴിഞ്ഞ് എനിക്കതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ട് പിടിക്കാൻ പറ്റുന്നു വെച്ചാൽ അതിപ്പോൾ എവിടെയാണ് നിലവിൽ നാളെ എനിക്ക് കിട്ടുമോന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കെങ്ങനെ അറിയാൻ പറ്റും